വികസനത്തിന്റെയും വളർച്ചയുടെയും കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് വെല്ലുവിളികളും ഉണ്ട് അതുപോലെ അവസരങ്ങളും ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാല് ഈ വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി അവിടേക്കുളള അവിടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് റോഡ് സർക്കാർ വീതി കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അതിലൊരു റോഡാണ് തിരുമല തൃക്കണ്ണാപുരം പള്ളിച്ചൽ വിഴിഞ്ഞം റോഡ് അപ്പോൾ അവിടേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം കുറച്ചുഭാഗം വീതി കൂടിയിട്ടുണ്ട് പക്ഷെ കുറച്ചു ഭാഗം വീതി കൂട്ടിയിട്ടില്ല കാരണമെന്താണെന്ന് വെച്ചാല് അവിടെയുള്ള കടകൾ ഒന്നും ഒഴിഞ്ഞുമാറി കൊടുക്കുന്നില്ല വീതി കൂട്ടാൻ അവർക്ക് ഇടിച്ചു കളയാനായിട്ട് കടകളൊന്നും ഒഴിയുന്നില്ല ഒരുപാട് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അത് ഒരുപാട് വർഷങ്ങളായിട്ട് അപ്പോൾ എന്താ കടകൾ ഇടിക്കാനായിട്ട് നാളെ വരും എന്ന് പറയുമ്പോൾ അവർ ഇന്നേ പോയി ഹൈക്കോടതിയിൽ നിന്നൊക്കെ സ്റ്റേ വ് മേടിച്ചു കൊണ്ടുവരും അങ്ങനെ അത് നീണ്ട നീണ്ടു നീണ്ടു നീണ്ടു പോകുന്നു അത് വികസനത്തിന്റെ ഒരു പ്രധാന വെല്ലുവിളിയാണ് പിന്നെ വേറൊരു വെല്ലുവിളി ഞാൻ കാണുന്നതെന്ന് വെച്ചാല് ഇപ്പോൾ മാനവീയം വീഥിയില് വീഥിയില് നൈറ്റ് ലൈഫ് വന്നു പക്ഷേ അവിടെ നൈറ്റ് ലൈഫ് വന്നപ്പോൾ ഒരുപാട് അടിയും വഴക്കുകളും തമ്മില് ഒരുപാട് ചെറുപ്പക്കാർ തമ്മില് ഉണ്ടായി അതിനുശേഷം ആ നൈറ്റ് ലൈഫ് പിന്നെ അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത് അപ്പം അതും ഒരു വെല്ലുവിളികളാണ് നമ്മൾ സ്വയമേ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ നമുക്ക് അത് നന്നായിട്ട് എടുക്കാം നല്ലൊരു നൈറ്റ് ലൈഫ് സിറ്റി ആക്കി മാറ്റാമായിരുന്നു അവിടെ തിരുവനന്തപുരം ഇപ്പോൾ ഒരു സ് ഒരുപാട് സ്മാർട്ട് സിറ്റി പ്രോജക്ട്സ് എല്ലാം കൊണ്ടു വരുന്നുണ്ട് പക്ഷേ അതിൽ മിക്കതും നമുക്ക് നോക്കിയാല് ഒരുപാട് കാലതാമസം എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ചിലതൊക്കെ പരാജയം ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരിട്ടുള്ള ഒരു അനുഭവമാണ് കഴക്കൂട്ടം എലിവേറ്റര് ഹൈവേ ആ ഫ്ലൈ ഓവര് ഒക്കെ വന്നില്ലേ അത് ഒരുപാട് വർഷമായി അതിന്റെ പണി തുടങ്ങിയിട്ട് ഇപ്പഴാണ് അതൊന്നു തീർന്ന് ഉദ്ഘാടനം ചെയ്തത് എത്രയോ കാലങ്ങളായിട്ട് പണി തുടങ്ങി ഇപ്പഴാണ് ചെയ്തത് ഒരുപാട് കാലതാമസം ഞാൻ കണ്ടുവരുന്നുണ്ട് ഈ തിരുവനന്തപുരത്തെ വ് വികസനത്തിന് ഒരുപാട് കാലതാമസം ഉണ്ട് പിന്നെ പറയുവാണെങ്കില് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് വികസനം വികസനത്തിനുവേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറി മറിയുകയാണ് അതായത് വ്യവസായ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടും എല്ലാം വേറൊരു തലത്തിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളുടെ ഗവൺമെന്റ് കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ അതുവഴി ഒരുപാട് കമ്പനികൾ തിരു കമ്പനികൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുമുണ്ട് അപ്പം അതും ഒരുപാട് അവസരങ്ങളാണ് ഈ സ്റ്റാര്ട്ടപ്പ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോപാർക്ക് പോലുള്ള സ്ഥലത്ത് ഒരുപാട് ഇന്ഫ്രാസ്ട്രക്ച്ചര് നമ്മള് ഗവണ്മെന്റ് നല്കുന്നുണ്ട് അപ്പം അതുവഴി അവർക്ക് അവിടെ ഒരു സ്ഥാപനം ഇടാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ടെക്നോപാർക്ക് ഫെയ്സ് ഫോർ വരെ എത്തി നിൽക്കുന്നു അതുപോലെ തന്നെ വികസനത്തിന്റെ നോക്കിയാല് ഇപ്പോള് ലുലു മോള് മോൾ ഓഫ് ട്രാവൻകൂർ അതെല്ലാം നമ്മുടെ തിരുവ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖചായ തന്നെ മാറ്റുകയാണ് ഈ ലുലു മോളും മോൾ ഓഫ് ട്രാവൻകൂറും എല്ലാം വന്നപ്പോഴും ഈ വിഴിഞ്ഞം പോർട്ട് വരെ വന്നപ്പോഴും നമ്മളുടെ തിരുവനന്തപുരത്തെ ഒരുവിധം ഉള്ള ഒരു തൊഴിലില്ലായ്മയെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു പിന്നെ വേറൊരു രീതിയില് പറഞ്ഞാല് ഇപ്പോൾ ഇലക്ട്രിക്ക് കാറുകളുടെ ഒരു കാലഘട്ടമാണ് അതിനുവേണ്ടിയിട്ട് ഇ ചാർജിങ് സ്റ്റേഷൻസ് പോലുള്ളവയെല്ലാം ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും തിരുവനന്തപുരം ഒരുപാട് ഉന്നതികളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം